കർഷകർ തങ്ങളുടെ മൃഗങ്ങളെ സുരക്ഷിതമായി മാനസികവും സംസ്കരണ സൗകര്യങ്ങളിലേക്ക് കൊണ്ടു പോകുന്നുവെന്ന് എങ്ങനെ ഉറപ്പാക്കാമെന്ന് ചോദിച്ചാൽ അതിൻ്റേതായ മൃഗങ്ങളുടെ മതിയായ സ്ഥലവും അതുപോലെ തന്നെ അതിന് വേണ്ട സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളോ അതുപോലെ തന്നെ വായു സഞ്ചാരവും അതുപോലെ തന്നെ തിങ്ങിപ്പാർപ്പിക്കാതെ അതിൻ്റെതായ കുറച്ചു സ്ഥലവും അങ്ങനെയൊക്കെ നൽകുന്നതാണ് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായി മൃഗങ്ങളെ മാനസികമായി സംസ്കരണ സൗകര്യങ്ങളിലേക്ക് കൊണ്ടു പോവാൻ ഉദ്ദേശിക്കുന്നത് മൃഗങ്ങളെ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായി കാണാതെ അതിനു വേണ്ട മനുഷ്യരെ പോലെ തന്നെ അതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടതും അതിനെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുകയോ മൃഗമല്ലേ എന്നു കരുതി അതിനെ പീഡിപ്പിക്കുകയോ ചെയ്യാതെ അതിൻ്റേതായ ഒരു ആവാസ വ്യവസ്ഥയും ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാവണം അതിനെയും പരിപാലിക്കേണ്ടത് ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ അതിന് നമ്മളോടും തിരിച്ചു സ്നേഹമുണ്ടാവുകയുള്ളു അതുപോലെ തന്നെ നല്ല ഒരു കർഷകനായി ഒരു മൃഗ വളർത്തൽ കർഷകനായി നമുക്ക് പറയാനും പറ്റുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം